ഇപ്പോൾ കേരളത്തിൽ ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ടു പോകേണ്ട ഒരു കാര്യമാണ് കാരണമെന്താണ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പരമ്പരാഗതമായിട്ട് വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന പല ആൾക്കാരുണ്ട് അപ്പം അവരൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഒരു വിശ്വാസം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പൂജ്യ കാര്യങ്ങൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ രോഗം മാറും അങ്ങനെയൊരു വിശ്വാസം കൊണ്ട് നടക്കുന്ന പല ആൾക്കാരുണ്ട് അപ്പം അവർക്കൊക്കെ ആ പൂജ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം അവരുടെ ഒരു വിശ്വാസപ്രകാരം ചിലപ്പം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറാനും ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ടുള്ള കാര്യങ്ങളാണ് അതായത് വൈദ്യ ചികിത്സ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം കൂടുതലായിട്ടും അവരീ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടു വൈദ്യന്മാരുടെ അടുത്താണ് അപ്പോൾ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന പല രീതിയിലുള്ള പച്ചമരുന്നുകൾ അതായത് വേര് അതായത് പലതരം വേരുകളിലൊക്കെ പച്ചമരുന്നുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇലകൾ അങ്ങനത്തെ പല രീതിയിലുള്ള ഉണ്ട് അപ്പം അതൊക്കെ പറിച്ചിട്ടാണ് കൂടുതലായിട്ടും ഇവരൊക്കെ എന്താ പറയുക അസുഖങ്ങളൊക്കെ മാറ്റുന്നത് അങ്ങനെയും മാറ്റുന്നവരൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം തേൻ കൊണ്ട് തന്നെ പല രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറും എന്നൊക്കെ പറയും നമുക്കിപ്പോൾ എന്തെങ്കിലും പൊള്ളലോ കാര്യങ്ങളൊക്കെ ഏറ്റ് കഴിഞ്ഞാൽ തേൻ തൂത്ത് കഴിഞ്ഞാൽ അവിടുത്തെ പൊള്ളലും കാര്യങ്ങളൊക്കെ വേദനയും കാര്യങ്ങളൊക്കെ കുറയും അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇഷ്ടം പോലെ പാരമ്പര്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്